ഹലോ അതെ കല്യാൺ സിൽക്സ് ആണ് വെൽകം മാം ഓക്കെ ഓക്കെ ഓക്കെ ഞങ്ങളുടെ ആ ഞങ്ങളുടെ വി അതെ ഹാൻഡ്മെയ്ഡ് ആയിരിക്കും പിന്നെ ഞങ്ങൾ ബനാറസിൽ നിന്ന് പോയിട്ട് നേരിട്ട് അവിടുത്തെ ആൾക്കാർ ഉണ്ടാക്കുന്ന ബനാറസ് സാരികളാണ് കൂടുതലും അവിടെ ഇവിടെ കിട്ടുന്നത് നല്ല വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് കൂടുതലും കൊടുക്കാറ് ആ വളരെയേറെ ബ്രൈറ്റ് കളേഴ്സും ഉണ്ട് നല്ല തിളങ്ങുന്ന കളേഴ്സും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ തീരെ നല്ല നോർമൽ ആയിട്ടുള്ള സാദാ ക കളേഴ്സും ഉണ്ട് മാമിന് ഏത് കളർ ആണ് വേണ്ടത് അതിനനുസരിച്ചുള്ളത് കസ്റ്റമൈസ് ചെയ്ത് തരാം ഓക്കെ ഓക്കെ അതെ മൊ മോണിംഗ് വെഡ്ഡിംഗ്സ് ആണ് കൂടുതലും ബ്രൈറ്റ് കളേഴ്സ് ആവും സ്യൂട്ട് ആവുക ബ്രൈഡിനുള്ള വെഡ്ഡിംഗ് സാരിയും കൂടിയും ഇവിടുന്നാണോ എടുക്കുന്നത് ബ്രൈഡിനും ആ ബ്രൈഡിനും ബനാറസ് സാരി തന്നെ അല്ലേ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ ഈ ബ്രൈഡിനൊഴികെയുള്ള ബാക്കി അഞ്ച് സാരികളും ഒരേ കളർ തന്നെ വേണോ ഓക്കെ ഓക്കെ ഞങ്ങൾ ഓക്കെ ഓക്കെ അത് ബ്ലൗസ് ഇതിൻ്റെ കൂടെ ചേർന്ന് അറ്റാച്ച്ഡ് എത്ത് അറ്റാച്ച്ഡ് ഉള്ളത് വേണമെങ്കിൽ അറ്റാച്ച്ഡും ഉണ്ട് അല്ലാത്തതും ഉണ്ട് അറ്റാച്ച്ഡ് ഇവിടുന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് തരുകയും ചെയ്യും നമുക്ക് നല്ല അടിപൊളി ഡിസൈനേഴ്സ് ഉണ്ട് നമുക്ക് നല്ല നല്ല സൂപ്പർ ഡിസൈനേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ അപ്പം അവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരുകയും ചെയ്യും ആ ഓക്കെ അബ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ബനാറസിലേക്ക് പോവുന്നുണ്ട് നെക്സ്റ്റ് മന്ത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്നിട്ട് നേരിട്ട് അവരുടെ സാരി സെലക്റ്റ് ചെയ്യാം കളർ സെലക്റ്റ് ചെയ്യാം അങ്ങനത്തെ പരിപാടി ഒക്കെ ചെയ്യാം നിങ്ങൾക്ക് കൂടെ രണ്ട് പേർക്ക് വരാം അപ്പോൾ അത് ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് സെലക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇനി ഇപ്പോൾ സാരി റെഡി ആവുവാണെങ്കിൽ അ ഒരു മാസത്തിന് മുമ്പ് എന്തായാലും റെഡി ആവും ഈ കല്ല്യാണത്തിന് ഒരു മാസം മുമ്പ് എന്തായാലും റെഡി ആവും അത് റെഡി ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങ് ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നേരിട്ട് കളക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് മെയിൽ ചെയ്യുക ചെയ്യാം ഓക്കെ ഓക്കെ സ്ഥലം എവിടെയാണ് മാം സ്ഥലം എവിടെയാണ് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശരി താങ്ക് യു താങ്ക് യു